ജലദോഷം ഭേദമാകാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പനിക്കൂർക്കയും തുളസി ഇലയും ഇട്ട് ആവി പിടിക്കുക്ക എന്നതാണ് ആ ആവി പിടിക്കുന്നതിലൂടെ നമുക്ക് നല്ല അശ്വാസവും ലഭിക്കും ചൂട് ആവി ചെല്ലുമ്പം മുക്കെല്ലാം തുറക്കുകയും ചെയ്യും നല്ല ആശ്വാസം ലഭിയ്ക്കും ജലദോഷം പൂർണ്ണമായും മാറും